കായികം തൊഴിലാക്കി അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനുദാഹരണങ്ങളാണ് മഹേന്ദ്ര സിങ് ധോണി വിരാഡ് കോഹ്ലി എന്നിവർ ഇവർ കായികത്തോ കായിക വിനോദങ്ങളിലൂടെയാണ് പ്രശസ്തി നേടിയതും രാജ്യം അറി ഒന്നടങ്കം അറിയപ്പെടുന്ന വ്യക്തികളായി മാറിയിട്ടുള്ളതും അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾ സ്പോർട്സ് സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട് അവരുടെ വളർച്ചയുടെ ഘട്ടം തുടങ്ങുന്നത് തന്നെ സ്കൂളുകളിൽ നിന്നാണ് ദേശീയ തലത്തിലേക്കും അന്തർ ദേശീയ തലത്തിലേക്കുമുള്ള അവരുടെ പ്രയാണത്തിൻ്റെ തുടക്കം സ്കൂളിലെ സ്പോർട്സ് പരിപാടികൾ തന്നെയാണ് കുട്ടികൾ സ്പോർടസിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ കായിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഘടകമാണത് പി റ്റി പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എല്ലാ വ്യക്തികളും ശീലമാക്കേണ്ട കാര്യമാണ് ഇത് നമ്മുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചക്കും അത്യാവശ്യമാണ്